മലയാള ഭാഷയുടെ വിളി വെല്ലുവിളികൾ ഇംഗ്ലീഷ് ഭാഷയാണ് മലയാളം മലയാളം ഇപ്പം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് മലയാളം നമ്മൾ പറയുമ്പോഴും അതിനകത്ത് ഇംഗ്ലീഷുകളും ഉണ്ട് നമ്മൾ ഇപ്പോൾ ആഹാരത്തിനായാലും ഫുഡ് കറൻ്റ് ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഇംഗ്ലീഷ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് മലയാളം തീരെ കുറഞ്ഞുൽ കുറഞ്ഞു വരികയാണ് നമ്മൾ നമ്മളെക്കൊണ്ട് ഒക്കുന്ന മലയാളം പറയാൻ പറഞ്ഞാലും ഇംഗ്ലീഷ് ഉള്ളിൽക്കേറി വരുവാണ് ഇപ്പം മലയാളം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇംഗ്ലീഷാണ് എല്ലാവരും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അതുകൊണ്ട് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന്